കൃഷി എന്നു പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് അപ്പം കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലൂടെയാണ് അവരുടെ കുടുംബത്തിലേക്കും അവരുടെ അവർക്ക് അവരുടെ എന്താണ് ജീവന മാർഗ്ഗം എന്നു പറയുന്നത് കൃഷിയാണ് കൃഷി നശിക്കുക അല്ലെങ്കിൽ കാലാവസ്ഥ കാരണം നശിക്കപ്പെടുക അല്ലെങ്കിൽ മൃഗശല്യം കാരണം നശിക്കപ്പെടുക അത് കർഷകൻ്റെ മാസങ്ങളോളമുള്ള ഒരു അധ്വാനമാണ് അവിടെ കാണിക്കുന്നത് ഇപ്പം ഒരു കാർഷിക വിളയ്ക്ക് ഒരു വില കുറയുകയാണ് അതുവഴി അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം മൊത്തത്തിലേ മുടങ്ങുകയാണ് അപ്പം കൃഷി എന്നു പറയുന്നത് ഒരു സീസണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സീസണിലെ എന്തെങ്കിലും ഒരു പിഴവ് പറ്റി അത് മൊത്തം അദ്ദേഹത്തിൻ്റെ ആ വാർഷിക വരുമാനത്തെ ആ ഒരു കുടുംബത്തെ തന്നെ തകർക്കാൻ കെൽപ്പുള്ളതാണ് അപ്പം ഈ വർഷ്യങ്ങളോളമുള്ള പരാതി പരിഹരിക്കപ്പെടാൻ വേണ്ടി ഗവൺമെൻ്റ് എന്തെങ്കിലും ഒരു കാര്യം കർഷകർക്ക് വേണ്ടി പല സ്കീമുകളും പദ്ധതി കൊണ്ടു വന്നാലും ഈ ഒരു ഇത് നമ്മൾ അത് മാറ്റി എടുക്കേണ്ടതാണ് കർഷകരുമായിട്ടുള്ള ആ ഒരു